കോഴിക്കോട് ജില്ലയിലെ ശ്രദ്ധേയമായ ലാൻഡ് മാർക്ക് എന്നൊക്കെ പറയാണെങ്കിൽ തന്നെ കാപ്പാട് ബീച്ചാണ് കാപ്പാട് ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് വന്നിറങ്ങിയ സ്ഥലമാണ് കാപ്പാട് ബീച്ചെന്ന് പറയുന്നത് അതേപോലെതന്നെ അതേറെ എന്താ അറിയപ്പെടുന്ന ഒരു ബീച്ചാണ് കാപ്പാട് ബീച്ച് കോഴിക്കോടുള്ള കാപ്പാട് ബീച്ചെന്ന് പറയുന്നത് പിന്നെ പറയാനുള്ളത് മിട്ടായിത്തെരുവ് മിട്ടായിത്തെരുവ് എന്ന് വെച്ചാൽ ഒരു സ്ട്രീറ്റ് പോലെയാണോയെന്ന് വെച്ചാൽ നമുക്കെല്ലാ സാധനങ്ങളും വില കുറച്ചും അതുപോലെതന്നെ എല്ലാ കാര്യങ്ങളും സാധനങ്ങളൊക്കെ മിട്ടായി തെരുവിൽ നമുക്ക് വാങ്ങാൻ പറ്റും കോഴിക്കോടിലെ ഒരു വേറൊരു പ്രധാനപ്പെട്ട ലാൻഡ് മാർക്കാണ് മുട്ടായിത്തെരുവ് എന്നൊക്കെ പറയുന്നത് പിന്നേ അവിടെ കുറെ ക്ഷേത്രങ്ങളും മ്യൂസിയങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മുട്ടായി തെരുവിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമുക്കെല്ലാ കാര്യങ്ങളും ചുറ്റി നടന്നാൽ കാണാം കൂടുതലും വിലകുറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് കൂടുതലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് ലാൻഡ് മാർക്കാണ് മിട്ടായി തെരുവ് എന്ന് പറയുന്നത് അതുപോലെതന്നെ കാപ്പാട് ബീച്ച് കാപ്പാട് ബീച്ച് വെച്ചാൽ വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് വന്നിറങ്ങിയ സ്ഥലമാണ് കാപ്പാട് ബീച്ചെന്ന് പറയുന്നത് പിന്നെ എന്ന് വെച്ചാൽ കുറെ മ്യൂസിയവും കാര്യങ്ങളൊക്കെയുണ്ട് കോഴിക്കോട് അങ്ങനെ കുറേ ശ്രദ്ധേയമായ ലാൻഡ് മാർക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കോഴിക്കോടുള്ളത്